പത്രമാധ്യമം എന്ന് പറയുന്നത് ഈ ലോകത്തോട് ബന്ധപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ് ഈ നിരന്തരം മറ്റുള്ളവരോട് പറഞ്ഞ് കൊടുക്കുന്നതും നമ്മൾ നിരന്തരം ചെയ്യുന്നതും രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ചുകഴിഞ്ഞാൽ പത്രം കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെയാണ് അതായത് ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാൻ അതുപോലെ തന്നെ വായിക്കാനുമൊക്കെ ഒരു നല്ല അനുഭവം പത്രത്തേക്കുറിച്ച് നമ്മൾ കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ നിരന്തരം നമ്മുടെ ടോക്കുകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ ഒക്കെ അവരെ ബോധ്യപ്പെടുത്താറുണ്ട് പത്രം വായിക്കേണ്ടതിൻറെ ആവശ്യകതയെ കുറിച്ച് കാരണം ഇപ്പം തന്നെ ഒളിമ്പിക്സ് നടക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്ഡേറ്റ് ആകാനൊക്കെ നമുക്ക് സാധ്യമാണ് അതുപോലെ തന്നെ ഒത്തിരി നല്ല അറിവുകൾ പത്ര മാധ്യമങ്ങളക്കെ പേയ്ഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഒന്ന് മനസ്സിലാക്കി വായിക്കാനൊക്കെ നമുക്ക് ഇന്ന് സാധ്യമാകും മുഴുവൻ ഒറ്റയടിക്ക് ഇരുന്ന് വായിച്ച് തീർക്കുവല്ല ചെയ്യുന്നത് മറിച്ച് ഓടിച്ചൊരു വായന നടത്തി അതിൽനിന്ന് ഇമ്പോർട്ടൻറ് എന്ന് തോന്നുന്ന ന്യൂസുകൾ അറിയാൻ കൂടുതൽ ആഗ്രഹം തോന്നുന്ന ന്യൂസുകൾ ഒക്കെ കുറച്ചും കൂടെ ഒക്കെ സമയം എടുത്ത് അതൊന്ന് വായി വായിക്കുവാണ് സാധാരണ ചെയ്യുന്നത് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് പത്രം വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം കാരണം സോഷ്യൽ മീഡിയാസിൽ എല്ലാം അവൈലബിൾ ആണ് ഇപ്പം വായന തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ നമ്മൾ വായിക്കേണ്ടതിൻ്റെ വായിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ അറിവായത് ചിന്തിക്കാനും കൂടെ സാധിക്കും വായിക്കുന്നതിനെ കൂട്ടത്തിൽ നമുക്ക് പിക്ച്ചറൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓരോ സംഭവങ്ങൾ നമ്മൾ മാ സോഷ്യൽ മീഡിയയിലെ കണ്ടു മാറുന്നു അതിനേക്കാളും കൂടുതൽ കുട്ടികളോടൊക്കെ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും ഇപ്പം എന്നാ സംഭവിക്കുന്നത് ഇപ്പം വിഴിഞ്ഞത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കുമ്പം അറിയാൻ സാധിക്കും പിള്ളേർ പത്രം വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വായിച്ചിട്ട് അതായത് ദിവസത്തെ ന്യൂസ് റീഡ് ഇപ്പം ആൾക്കാരോട് സംസാരിക്കേണ്ട ഒരു ഓഡിയൻസിന് മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുമ്പം പ്രധാനമായിട്ട് ആ ന്യൂസുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ആ ഓഡ്യസിനെ ഒക്കെ കയ്യിൽ കിട്ടുകയാണ് ആ ചെയ്യുന്നത് നമ്മൾ ചുമ്മാ കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കറണ്ട് ആയിട്ട് നടക്കുന്ന ഇഷ്യൂസുമായിട്ട് ഒന്ന് കണക്റ്റ് ചെയ്യുമ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ അധികമാണ് അപ്പം അങ്ങനെ പറയുമ്പം തന്നെ ന്യൂസിനോട് അല്ലെങ്കിൽ പത്രത്തോട് ഒക്കെയുള്ള ആഭിമുഖ്യമായിട്ടുള്ളവരിലും അത് വളരെയധികം ആയിട്ട് ഉണ്ടാവുന്നുണ്ട് അവരും വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം മറ്റുള്ളവർക്ക് പത്രം അങ്ങനെ ആരും വായിച്ച് തരുന്നതായിട്ടുള്ളൊരു നേച്ചർ അല്ല അത് സാധാരണ നമ്മൾ വായിക്കും നം പ്രൈവറ്റ് ആയിട്ട് ജസ്റ്റ് ഇപ്പം ഒരു പത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സാധാരണയെക്കെ എന്തെങ്കിലും സാഹചര്യത്തിൽ മറ്റു പത്രങ്ങളൊക്കെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അതിലും കൂടെ കമ്പയർ ചെയ്യാനൊക്കെ ഒരു സഹായമാണ് മെയിൻലി എഡിറ്റോറിയൽ പേജ് ഒത്തിരി എഫക്റ്റീവ് ആണ് അവിടെ ന്യൂസിനേക്കാൾ ഉപരി ആയിട്ട് ഒരു ഇൻഫോർമേഷൻ ഒരു നോളഡ്ജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഈ എഡിറ്റോറിയലിന് സാധ്യമാവുന്നുണ്ട് കറണ്ട് ഇഷ്യൂസിനെ ഒക്കെ മാനേജ് ചെയ്യുന്നത് എഡിറ്റോറിയൽ എഡിറ്റോറിയൽ ബോർഡ് ഒക്കെ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ അതിനേക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ആർട്ടിക്കിൾ വരുന്നതും അതും ഒക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്